ബഹുമാനപ്പെട്ട വാകത്താനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന് തോട്ടക്കാട് എട്ടാം വാഡിൽ ചിറയ്ക്കൽ നിവാസികൾ സമർപ്പിക്കുന്ന നിവേദനം ബഹുമാനപ്പെട്ട സാർ ഞങ്ങളുടെ പ്രദേശത്ത് വാകത്താനം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സ്ഥാപിച്ചിട്ടുള്ള ഏകദേശം പത്തോളം ബിന്നുകൾ നമുക്ക് ഉപയോഗത്തിനുണ്ടായിരുന്നു ഈയിടെയായി നമ്മുടെ ഈ സമീപപ്രദേശങ്ങളിൽ വീശുന്ന ശക്തമായ കാറ്റിൽ ഈ സ്ഥാപിക്കപ്പെട്ട പത്തോളം ബിന്നുകൾ സ്ഥാനഭ്രംശം സംഭവിച്ച് അതിൻ്റെ കാലുകളൊക്കെ ഒടിഞ്ഞ് അതിന് ഉപയോഗയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു ആയതിനാൽ സംഭവിച്ച കേടുപാടുകൾ നീക്കി ഇപ്പോഴുള്ള ബിന്നുകൾ പുനഃക്രമീകരിക്കുകയും പോയ ബിന്നുകളൊക്കെ മാറ്റി പകരം നല്ല ബിന്നുകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളഭ്യർത്ഥിക്കുന്നു ഇത് നമ്മുടെ ശുചിത്വം മിഷൻ്റെ ഒരു നല്ല പ്രവർത്തനമായി ഞങ്ങൾ കണ്ടിരുന്നു അത് തുടർന്നും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് നിവാസികളോടൊപ്പം ഒപ്പ്